ഇത് കേരളത്തിലെ ഗൈഡല്ലേ ഞാൻ ബാംഗ്ലൂറിൽനിന്ന് വിളിക്കുന്നതായിരുന്നു അപ്പോൾ കേ ഞാൻ എൻ്റെ പേര് യദുകൃഷ്ണൻ എന്നായിരുന്നു അപ്പോൾ ഞാൻ ഈ കേരളത്തിൻ്റെ കൾച്ചറിനെയും പിന്നെ അവിടുത്തെ ഡ്രസിങ് സ്റ്റൈൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എങ്ങനത്തെയായിരുന്നു എന്നൊക്കെ ആ ഉണ്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ആ പറഞ്ഞു തന്നാൽ മതി കണ്ടുമനസ്സിലാക്കി വേണം എന്നില്ല നമുക്ക് പറഞ്ഞുതന്നാൽ മതി ആ

ഉണ്ട് അല്ലേ ആ ആ എടുക്കാം എടുക്കാം അതുകുഴപ്പമില്ല ആ എടുക്കാം മ് ആ അതെ ആ

ആ അതെയതെ ആ ആ ആ ഓ ആ മ് ആ ആ ആ ആ അതെ ആ ആ

അങ്ങനെയുണ്ടല്ലേ ഓക്കെ ഓക്കെ ആ ഓക്കെ ആ ഓക്കേ ഓക്കെ ഞാനെന്നാൽ എന്തായാലും ഞാൻ വിളിക്കാം ഞാനിതൊന്നു നോട്ട് ചെയ്തുവെച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം ഓക്കെ ഓക്കെ എന്നാൽ